ചിത്രരചന ആളുകൾക്ക് രോഗശാന്തി മാത്രമല്ല നൾകുന്നത് പ്രയോജനകരമായ മറ്റ് പല കാര്യങ്ങളും ചിത്രരചന ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട് ഓരോ ചിത്രത്തിന് പിന്നിലും ഓരോ വലിയ അർത്ഥമുണ്ട് ഓരോ ചിത്രകാരനായിക്കോട്ടെ ചിത്രകാരിയായിക്കോട്ടെ വരക്കുന്ന ഓരോ ചിത്രത്തിന് പിന്നിലും അതിൻ്റെതായ അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെതായ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ചില പല ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത് പലതരം ഇമോഷൻസിനേയും പല തരം വ്യക്തികളേയും പല തരം അർത്ഥങ്ങളെയും ആണ് ചില ചിത്രങ്ങൾ നമുക്ക് സമാധാനം സന്തോഷം ഒക്കെയാണ് എന്നിവയാണ് തരുന്നത് പകരം ചില ചിത്രങ്ങൾ നമ്മൾക്ക് സങ്കടം പേടി ദുഃഖം ദേഷ്യം എന്നീ വികാരങ്ങളാണ് ചില ചിത്രങ്ങൾ നൾകുന്നത് ഓരോ ചിതങ്ങളും ഓരോ മെസ്സേജാണ് ആ ചിത്രം കാണുന്ന ആൾക്ക് കൊടുക്കുന്നത് ചില ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനവും നമ്മൾക്ക് നമ്മൾ ഇപ്പം ഒരു രോഗം നമ്മൾ ഇപ്പം ഒരു രോഗം പിടിപെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചില ചിത്രങ്ങള് കണ്ടാൽ നമ്മുടെ രോഗമൊക്കെ പടേന്ന് പറന്ന് പോകും കാരണം അത്ര മീനിങ്ങ് ഫുള്ളായിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട് അത് വരയ്ക്കുന്ന ആളനുസരിച്ചിരിക്കും ആ ചിത്രത്തിൻ്റെ ഭംഗി ഓരോ ചിത്രകാരനും ഓരോ ചിത്രകാരിയും വരയ്ക്കുന്ന ആ ചിത്രത്തിൻ്റെ അതേ ഭംഗി മറ്റുള്ള കാണുന്ന ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ അതിനും വേണമൊരു കഴിവ് അതിനാണ് ചിത്രരചന എന്ന് പറയുന്നത് നമ്മള് ചിലര് അത് ഇപ്പോൾ ചിലവരായിക്കോട്ടെ ചിത്രം വരയ്ക്കുമ്പം അതിൻ്റെ ഒരർത്ഥം നോക്കി വരക്കുന്നവരായിരിക്കില്ല വെറുതെ ഒന്ന് അങ്ങ് ഇങ്ങും കൂട്ടി കൂട്ടി വരച്ചാൽ അത് ചിത്രം ആകണം എന്നില്ല പിന്നെ നമ്മള് വേ നമ്മൾ ഒരു കലാകാരൻ ആകാൻ വ്യക്തിയെന്ന നിലയിൽ നമ്മൾ ആർജ്ജിക്കുന്ന ഗുണങ്ങളുണ്ട് ചില ചില ഗുണങ്ങളുണ്ട് നമ്മള് ആർജ്ജിക്കേണ്ട ചില ഗുണങ്ങളുണ്ട് അച്ചടക്കം സംഘാടക കഴിവുകൾ ഭാവന ഓരോ ചിത്രം വരക്കാനും നമുക്കൊരോ ഭാവന വേണം ഭാവന ഉണ്ടെങ്കിലേ ഒരു ചിത്രം നന്നാവു അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് ഒരു അർത്ഥമില്ലാതായിപ്പോവും